ഹാ ആണോ എന്താ എന്താ ശരിക്കും എത്ര ദിവസമായി ആ ഏ ഇതിന് മുമ്പ് ആരാ അത് ചെയ്തത് ആണോ ആണോ അതിൻ്റെ എന്നാൽ അതിൻ്റെ റെഗുലേറ്റർ മാറ്റേണ്ടിവരും ഭാരത് റെഗുലേറ്ററെങ്ങാട്ട് ആയിരിക്കും അത് ഭയങ്കര മോശം സാധനമാണ് ചിലപ്പോൾ അതിൻ്റെ പ്രശ്നമായിരിക്കും അല്ല അത് ഞാൻ വാങ്ങിക്കോളാം പക്ഷെ നിങ്ങൾ പൈസ അയച്ച് തന്നാൽമതി അത് ഒരൂ മുന്നൂറ്റി അമ്പത് രൂപയാവും

നിങ്ങളുടെ സ്ഥലം എവിടെയേനു കൂത്തുപ്പറമ്പ് എവിടെ ഒ എണ്ണീർപ്പാടം അങ്കണവാടിയുടെ അടുത്താ

ഞാൻ നാളെ ഒരു ഉച്ചയെല്ലാം ആവുമ്പോൾ വരാം നിങ്ങളവിടെ ഉണ്ടാവില്ലെ

വേറെ എന്തെങ്കിലും കംപ്ലയിൻറ്റുണ്ടോ ഉണ്ടെങ്കിൽ സൗണ്ടിൻ്റെ ഇഷ്യുവോ അങ്ങനെ എന്തെങ്കിലും

ഓക്കെ ആ ശരി ഞാൻ ഇനി നാളെ വരുമ്പോൾ വിളിക്കാം കേട്ടോ ആ ശരിയെന്നാൽ